എന്റെ അടുത്ത് ഉണ്ടായിരുന്ന ആദ്യത്തെ ഫോണെന്നു പറയണത് നോക്കിയയുടെ ഒരു കീപ്പാഡ് ഫോണായിരുന്നു നമുക്കതിൽ കോൾ ചെയ്യാൻ പറ്റും പിന്നെ ചെറിയൊരു ഒന്ന് രണ്ട് ഗേയ്മുകൾ ഉണ്ടാവും ഫ്ലാഷ് ലൈറ്റ് അങ്ങനെ അലാറം സെറ്റ് ചെയ്യാം അങ്ങനെ ചെറിയ ചെറിയ ഓപ്ഷൻസ് ഉണ്ടാരുന്നുള്ളു പഷെ അന്ന് കാലത്ത് നമുക്കത് ഓക്കേ ആയിരുന്നു അതു മതിയാരുന്നു അതു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ടൈം കഴിയുമ്പോഴായിരുന്നു ഈ സ്മാർട്ട് ഫോൺസിന്റെ ഇത് ഒരു എൻട്രി ആ സമയത്ത് എന്റെ കയ്യിലൊരു ഞാൻ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എടുത്തത് നോക്കിയയുടെ തന്നൊരു ടച്ച് ടച്ച് ഫോൺ ആയിരുന്നു എടുത്തത് അന്നെന്ന് പറയുമ്പോൾ ഇതിൽ ക്യാമറ ഇൻക്ലൂഡ് ആയിരുന്നു അപ്പോൾ നമുക്ക് ക്യാമറ സെൽഫീസ് എടുക്കാൻ പറ്റുമായിരുന്നു അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് കൊണ്ടു വന്നു അവർ സ്മാർട്ട് ഫോണിൽ പക്ഷെ അന്നും ആ പണ്ടത്തെ സ്മാർട്ട് ഫോൺസ് എന്ന് പറയുമ്പൊഴും അതിൽ ഈ റാം കുറവാരുന്നു അതേപോലെ സ്റ്റോറേജ് കുറവാണ് അപ്പോൾ നമുക്ക് ഒരു കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വലിയൊരു ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും അത് റാം കുറവ് കാരണം കൂടുതൽ വലിയ വലിയ അപ്പിക്കേഷൻസ് നമുക്ക് നമ്മടെ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ലാരുന്നു അങ്ങനെയൊക്കെ ഇത് പിന്നെ അതും കഴിഞ്ഞിട്ടിപ്പോൾ വലിയ വലിയ സ്മാർട്ട് ഫോൺസുകൾ വരാൻ തുടങ്ങി വില കുറഞ്ഞ വിലയ്ക്ക് നല്ല ഫീച്ചേഴ്സ് ഉള്ള സ്മാർട്ട് ഫോൺസ് വരാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിലുള്ള ഫോണെന്ന് പറയുന്നത് ആപ്പിളിന്റെ ഐഫോൺ ആണ് അത് ഏറ്റവും നമ്മുടെ ബ്രാൻഡഡ് ഫോൺ എന്ന് അറിയപ്പെടുന്നൊരു ഫോൺ ആണ് അപ്പോൾ ആ ഫോണിൽ ഇനി എന്റെ പണ്ടത്തെ ഫോൺ വച്ചു നോക്കുന്ന സമയത്ത് ഇപ്പോൾ നല്ല ക്യാമറ ഉണ്ട് കൂടുതൽ സ്പെയ്സ് ഉണ്ട് സ്റ്റോറേജ് കൂടുതലാണ് റാം കൂടുതലാണ് അതേപോലെ ഭയങ്കരമൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ പണ്ടത്തേക്കാളും ആധുനികമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ പുതിയ ഫോണുകളിൽ സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വരുന്ന കാലത്ത് ഇതിനെക്കാളും ആധുനികമായ ടെക്നോളജീസ് വന്നുകൊണ്ടേയിരിക്കും